അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമിലൊന്നും അങ്ങനെ ടൂർണ്ണമെൻറ്റിനൊന്നും പോയിട്ടൊന്നുമില്ല ഇല്ലാണ്ട് ഫോണിലൂടെ നമ്മള് ഗെയിംമ്കളൊക്കെ കളിക്കാറുണ്ട് ഫോണിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിംമുകളൊക്കെയുണ്ട് പാമ്പും കോണിയുമുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ പാമ്പും കോണീമൊക്കെ ഉണ്ടായിരുന്നു പാമ്പ് അതേ ആ അങ്ങനെയുള്ള പാമ്പും കോണി പിന്നെ ക്യാൻറ്റി ക്രഷാകാം ബബിൾ ഷൂട്ടറ് പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് അങ്ങനെയുള്ള ഒരുപാട് ഗെയിംമ്കളൊണ്ട് കാർ റൈസിംഗ് ബൈക്ക് റൈസിങ്ങ് അങ്ങനെ ഒരുപാട് ഗെയിംമുകളുണ്ട് ഇപ്പ നമ്മുടെ ഫോണിൽ തന്നെ ഫോണിലിപ്പം ഗെയിംസ്ന്ന് പ്ലെയ്സ്റ്റോറിൽ പോയിട്ട് ഗെയിംസ്ന്ന് അടിച്ച് കൊടുത്താല് ഒരുപാട് ഗെയിമുകള് വരും ഞമ്മക്ക് ഇപ്പ എന്ത് ഇഷ്ടമുള്ള ഗെയിമാണെങ്കിലും നമുക്ക് ഒരു ഗെയിംമ് കളിച്ച് നോക്കീട്ടത് വേണ്ട അടുത്ത ഗെയിംമ് കളിക്കാന്നൊള്ളതാണെങ്കില് അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഗെയിംമ് കളിക്കാനക്കെ പറ്റും അങ്ങനെള്ള സംവിധാനക്കെണ്ട് ഈ ഫോണില് പിന്നേന്ന് പറഞ്ഞാൽ അങ്ങനെ ഗെയിംമ് കളിക്കണമെങ്കിൽ നെറ്റ് വേണമെന്നില്ല നെറ്റില്ലാതെ തന്നെ ഗെയിംമ് കളിക്കാം പിന്നെ ഓൺലൈൻ ആയിട്ട് ഗെയിംമ് കളിക്കണങ്കില് ഇതൊക്കെ വേണ്ട പിന്നെ ഓൺലൈനായിട്ട് ഗെയിംമ് കളിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് ക്യാരം ബോഡ് കളിക്കാറ്ണ്ട് ഓൺലൈൻല് ഓരോ ആളുകളെ കൂട്ടീട്ട് നമ്മളങ്ങനെ കളിക്കാറക്കെണ്ട് അങ്ങനെയുള്ള കളിയൊക്കെ കളിച്ചിട്ട്ണ്ട് ഇല്ലാണ്ട് ടൂർണ്ണമെൻറ്റില് പോയിട്ടൊന്നും മത്സരിച്ചിട്ടൊന്നൂല്ല